ഞാൻ ഇടുക്കി ജില്ലയിലുള്ള ആളാണ് ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അൽപ്പം തണുപ്പ് കാലാവസ്ഥ ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ആയിട്ടുള്ളത് ഞാൻ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഉദയഗിരി നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് സാമാന്യം നന്ന നന്നായിട്ട് അദായകരമായ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നത് ഒരു കൃഷിയാണ് ഏല കൃഷി നേരത്തെ മറ്റു കൃഷികൾ ഒക്കെ ഉണ്ടായിരുന്നു കൊടി തേയില കാപ്പി ഇങ്ങനെയുള്ള കൃഷികൾ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഒരു കുറെ വർഷങ്ങളായിട്ട് ഒരു പത്ത് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ഒട്ടുമുക്കാലും പേര് ഏലക്കൃഷിയിലേക്ക് ജല ലഭ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഏലക്കൃഷിയാണ് ലാഭകരമായിട്ട് കാണാൻ പറ്റുന്നത് കാരണം ഒരു ഒരു ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം പിന്നെ അതായത് കുറേശെ ആണെങ്കിലും ആദായ എടുക്കുവാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ഏലക്കൃഷി എന്ന് പറയുന്നത് ഏലത്തിൻ്റെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ സാമാന്യം വളരെ അധികം ശ്രദ്ധിച്ച് പരിപാലിക്കേണ്ട ഒരു കൃഷിയാണ് അതിന് സമയാ സമയങ്ങളിൽ വളം ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ കീടങ്ങളുടെ ഉപദ്രവങ്ങളെ ഒക്കെ സംരക്ഷിക്കാൻ കീട നാശിനികൾ അടിക്കുക നിലം ഒരുക്കി കിളച്ച് പൊതയിട്ട് കൊടുക്കുക വേനൽക്കാലത്ത് പൊതയിട്ട് കൊടുക്കുക ഇങ്ങനെ പലപ്പോഴും വളരെ അധികം ശ്രദ്ധിച്ച് പരിപാലിക്കേണ്ട ഒരു വിഷയം ആണ് വിദേശ രാജ്യങ്ങളിലേക്കും എല്ലാം അത്യാവശ്യം കയറ്റുമതിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതു കൊണ്ട് എപ്പോഴും ആവറേജ് ഒരു വില നമുക്ക് ലഭ്യമാകാൻ ഈ കൃഷി നമുക്ക് സഹായിക്കുന്നുണ്ട് ഇവിടെ ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ആ കൃഷി തന്നെ ഒരു ഒരു ബെൽ ജല ലഭ്യത അനുസരിച്ച് അതൊരു അറുപത് എഴുപത് ശതമാനം ആളുകളും ഈ എലക്കൃഷി നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ബെ ജലം അൽപ്പം കുറവുള്ള സ്ഥലങ്ങളിൽ ഒക്കെ വലിയ പട്താ കുളങ്ങൾ ഒക്കെ അടിച്ച് പിന്നെ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ലക്ഷം വെള്ളം കൊള്ളുന്ന പട്താ കുളങ്ങൾ ഒക്കെ അടിച്ച് വെള്ളം സ്റ്റോക്ക് ചെയ്ത് മഴക്കാലത്ത് വെള്ളം സ്റ്റോക്ക് ചെയ്ത് വേനക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെയുണ്ട് അങ്ങനെ അങ്ങനെയും കൃഷി ചെയ്യാവുന്നത് ആണ് എന്താണെങ്കിലും ഈ ഏലക്ക നമ്മുടെ സുഗന്ധജ്യം വ്യഞ്ജനങ്ങളിൽ പെട്ടൊരു ഉൽപ്പന്നമാണ് ഏലക്ക എന്ന് പറയുന്നത് അത് രാജ്യാന്ദര വിപണിയിൽ തന്നെ നല്ല മാർജിൻ മാർക്കറ്റുള്ള ഒരു സംഭവമാണ് എപ്പോഴും നമുക്ക് ഒരു ആയിരം രൂപായിക്കും മുകളിൽ ഒരു കിലോ ഉണക്ക ഏലക്കായിക്ക് വില കിട്ടിയാൽ മാത്രമേ കൃഷിക്കാരന് ലാഭകരം ആകുള്ളൂ അത് ഒരു രണ്ടായിരം മൂവായിരം റേഞ്ചുകളൊക്കെ വരാവുന്നാണ് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എലക്കായക്ക് നമുക്ക് വില കിട്ടുന്നുണ്ട് ഈ വില അത്യാവശ്യം സ്യൂട്ടബിളാണ് നമുക്ക് കൃഷി ചിലവ് പോയാൽ എപ്പോഴും നമുക്ക് നല്ലൊരു എമൗണ്ട് ബാലൻസെടുക്കാൻ പറ്റുന്നൊരു ഇതാണ് പിന്നെ ഇടവിളയായിട്ട് മറ്റ് ഇടവിളയിൽ അല്ല മറ്റ് കൃഷികളിൽ ഉണ്ട് പിന്നെ കാപ്പി കൊടി തേയില ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യുന്നവർ ധാരാളം പേരുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും താല്പര്യ ഉള്ളതും പെന്നെ ഇതാണ് ഏല കൃഷിയാണ് എനിക്ക് മെച്ചമായിട്ട് തോന്നുന്നത് ഓക്കെ